ആ ഡോക്ടർ നീതുവല്ലേ ദന്തൽ സ്പെഷ്യലിസ്റ്റല്ലേ ആ മേടം ഞാന് വിളിക്കുന്നത് അമ്പലവയലില് നിന്നാണ് മാനന്തവാടി ആ മേഡം ഞാന് കഴിഞ്ഞദിവസം ഒരു സോഡ ബോട്ടില് ഓപ്പൺ ചെയ്തപ്പോള് എൻ്റെ ഫ്രണ്ടിലെ ഒരു പല്ല് ഇളകിയിട്ടുണ്ട് പൊട്ടുകയും ചെയ്തിട്ടുണ്ട് ഭയങ്കരം വേദനയാണ് അതിന് അണപല്ലും ഫ്രണ്ടിലെ പല്ലും സൈഡായിട്ട് സൈഡില് കൂടെയാണ് കടിച്ചത് ആ ഏകദേശം അണപല്ലിൻ്റെ സൈഡിലായിട്ട് വരും ആ പൊട്ടിയിട്ടുണ്ട് നല്ലവണ്ണം പൊട്ടിയിട്ടുണ്ട് അത് ഭയങ്കരം പെയ്നാണ് ഒന്നും ചവയ്ക്കാനും കഴിക്കാനുമൊന്നും പറ്റുന്നില്ല പല്ലും ഇല്ല ഡോക്ടറെ കാണിക്കാന് പോയില്ല ഞാനിപ്പോള് അ മാഡത്തിൻ്റെ നമ്പര് കിട്ടി ജസ്റ്റൊന്ന് വിളിച്ചുനോക്കിയതാണ് ആ നല്ല വേദനയാണ് ആ പല്ല് ഇളകിയിട്ടുണ്ടെന്നു തോന്നുന്നു മേടം വേദനയുണ്ട് പിന്നെ പൊട്ടിയിട്ടുമുണ്ട് പൊട്ട് വന്നിട്ടുണ്ട് ബ്ലഡ് വന്നില്ല പക്ഷേ നല്ല വേദനയുണ്ട് ചെറിയ പൊട്ട് പല്ല് പൊട്ടി ഒരു കഷണം കയ്യിൽ വന്നു ആ ഓക്കെ ഓക്കെ മേടം അപ്പോള് ഞാന് ടെക്സ്റ്റ് ചെയ്താല് മതി മാടം അപ്പോള് ഞാൻ എനിക്ക് ഗുളിക ചില ഗുളികകൾ അലർജിയുണ്ട് അപ്പോള് അതെന്തുചെയ്യും ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ മാടം ആ ഓക്കെ മേടം ആ ഓക്കെ ഓക്കെ മേടം ഓക്കെ മേടം കഴിച്ച് വേദന ഈ ഗുളിക കഴിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പം വരികയാണെങ്കില് ഞാന് മേടത്തെ അറിയിക്കാം ആ ഓക്കെ ഓക്കെ താങ്ക് യൂ മേടം ആ എന്നാല് മാടം വാട്സപ്പ് ചെയ്താല് മതി ആ ശരി ഓക്കെ താങ്ക് യൂ